പ്രാദേശിക ബിസിനസുകളിലെ അതിന് പ്രാദേശിക ബിസിനസുകളുടെ വളർച്ചയെ സഹായിക്കാൻ ടൂറിസത്തിന് വളരെ വലിയൊരു പങ്കാണുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസം ഒരു നാട്ടിലൊരു ടൂറിസം വന്നിട്ടുണ്ടെങ്കിൽ അത്രക്കും വലിയ ടൗൺ അല്ലെങ്കിൽ വലിയ ഒരു പ്രധാ എന്താണ് പറയുക ഗ്രാമപ്രദേശമാണങ്കിൽ അവിടെ ചെറുകിട വ്യവസായങ്ങളാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ടൂറിസം അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലെയ്സ് അവിടെ വരുകയാണെങ്കിൽ അപ്പം അവിടെ തീർച്ചയായും ആൾക്കാർ വരും ആൾക്കാർ വരുമ്പോൾ അവിടെ എന്തായാലും ചിലവുകൾ നടക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ ആണെങ്കിൽ പോലും ഒരു ചെറുകിട ഹോട്ടൽ അതായത് ഒരു ചെറിയ ഒരു ചായക്കട ആണെങ്കിൽ പോലും അവിടെ കച്ചവടം നടക്കും അത് എന്തായാലും ആൾക്കാർ ടൂറിസ്റ്റ് ആൾക്കാർ വരുമ്പോൾ ടൂറിസം വരുമ്പോൾ അവിടെ ആൾക്കാർ സന്ദർശകർ വരുമ്പോൾ അപ്പോൾ അവിടെ എന്തായാലും എന്തുചെയ്യും ഒരു ചായക്കടക്ക് ഒരു ഇതുണ്ടാകും കാരണം ഒരു ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സ് വെള്ളത്തിനെങ്കിലും ആൾക്കാർ വരും അങ്ങനെ വരുമ്പോൾ ആ ഒരു ഓ അവിടെ ഒരു വരുമാനം ഉണ്ടാകും അപ്പം ആ വരുമാനത്തിൽ നിന്നാണ് ഓരോ ബിസിനസ്സിനും വളർച്ച ഉണ്ടാവണമെങ്കിൽ അവിടെ വരുമാനം വേണം അപ്പോൾ ബിസിനസ് വരുമാനം വരുമ്പോൾ അതിൻ്റെ ടൂറിസം വരുമ്പോൾ എന്തായാലും ബിസിനസ്സുകൾക്ക് വരുമാനവും വളർച്ചയും ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്